ഉയരങ്ങളെ പല പ്രാവശ്യവും പേടിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഒന്നാമതീ മരങ്ങൾ മരങ്ങളുടെ മുകളിൽക്കയറിനിന്ന് നില്ക്കുമ്പോഴുണ്ടായിരുന്ന പേടിയൊക്കെ പിന്നെ ക്ലാമ്പിങ് ക്ലാമ്പിങ് ചെയ്തിട്ടുണ്ട് ക്ലാമ്പിങ്ങ് ചെയ്യാന്ന് വച്ചുകഴിഞ്ഞാല് ഈ പട്ടാളത്തില് ട്രെയിനിങ്ങിന്റെ സീസണാ ട്രെയിനിങ്ങിന്റെ ഇതായിട്ട് വന്ന കാലഘട്ടങ്ങളില് ഹൈ റോപ് വെർട്ടിക്കൽ റോപ്പും അല്ലാത്ത റോപ്പുകളൊക്കെ പിടിച്ച് കയറേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴതിൻറ്റാത്ത് വേണ്ടുന്നൊരു കാര്യമെന്നുവച്ചാല് സ്റ്റാമിനയാണ് നമ്മുടെ ഈ വെറും റോമ്പിങ് ക്ലമ്പിംഗ് മാത്രമല്ല നമ്മള് എസ്സസൈസ് ഒരു പത്ത് കിലോമീറ്റര് ഓടിവന്നിട്ട് വേണം ഇതിന്റെ റോപ്പിനകത്തു കയറാന് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളില് വന്ന് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കൈ വിറച്ചു പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് കാരണം ഭയമുണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സമയങ്ങളില് നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കാര്യങ്ങള് ചെയ്യുക റെസ്റ്റെടുത്ത് എടുത്ത് ചെയ്യാറുണ്ട് അത് കാരണം അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്ക് ചിന്തിക്കുകയും റോമ്പിങ് ക്ലൈ ക്ലൈമ്പിങ് ചെയ്യുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തു കഴിഞ്ഞ് പിന്നെ പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നതിനു മുന്പില് കുറച്ച് റെസ്റ്റിന്റെ ആവശ്യമുണ്ട് അപ്പോള് റെസ്റ്റ് എടുത്തിട്ട് പിന്നടുത്ത അതിലേക്ക് പോകാറുള്ളു അപ്പോള് അതിലും ചില നല്ല കാര്യങ്ങളൊക്കെയുണ്ട് അത് നമ്മളെപ്പഴും ക്ലൈമ്പിങ്ങിന് പോകുമ്പോഴും നല്ല ബോഡി നല്ല ഫിസിക്കൽ ഫിറ്റ്നസിൻറ്റാവശ്യമുണ്ടിതിനകത്തെ അങ്ങനുള്ള ആൾക്കാരെ ഇതില് കയറാനുമിറങ്ങാനും പറ്റത്തുള്ളു അപ്പോള് അങ്ങനുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ക്ലം ഇതിന് പോം ക്ലൈമ്പിങ്ങിന് പോകുന്നതിനു മുന്നേ തന്നെ നമ്മള് ബോഡിയെ നമ്മളെയും ഒരുപോലെ ശ്രദ്ധിക്കണം കാരണം എനിക്കത് ചെയ്യാൻ പറ്റുമോ എനിക്കതില് കയറാൻ പറ്റുമോ കയറിയാലിറങ്ങാൻ പറ്റുമോ ഈ രണ്ടുകാര്യങ്ങളുണ്ട് ഇറങ്ങി കയറിയാലിറങ്ങിയെ പറ്റുള്ളു അപ്പങ്ങനുള്ളെ കാര്യങ്ങള് ചിന്തിച്ചിട്ട് വേണം അതേക്കയറാനും തുടങ്ങാനും അപ്പങ്ങനുള്ള കാര്യങ്ങള് വന്നുകഴിഞ്ഞ് അപ്പോള് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാമ്പറ്റും അല്ലാതിതിനേപ്പറ്റി അറിയാത്ത ആൾക്കാര് പെട്ടെന്ന് പോയിട്ട് ഒരു കാര്യം ചെയ്തുകഴിഞ്ഞാൽ അത് ഫെയിലാവത്തെ ഉള്ളു ചെയ്യാമ്പറ്റത്തില്ല അങ്ങനുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റകത്തുണ്ട് പിന്നെ ഞാനാണ് എനിക്കാണെങ്കിൽ പട്ടാളത്തിന്റെ ട്രെയിനിങ്ങിന്റെ ഇതായിട്ടാണ് എനിക്ക് ഇത് റോപ്പ് കയറാനുള്ള അവസരങ്ങളുമൊക്കെ കിട്ടിയിട്ടുള്ളത് അതൊക്കെ ഞാനതിന്റെ സമയത്ത് കയറിയിട്ടുണ്ട് ഇറണ്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഈ കാലഘട്ടത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ എല്ലാം പ്രായം കഴിഞ്ഞുപോയി പ്രായം കഴിഞ്ഞാല് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇതിന്റകത്ത് വേറെ നമുക്ക് ഇതിനകത്ത് ക്ലെമ്പിംഗ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പേടിയുണ്ടായിട്ടുണ്ട് കാരണം കാല് എടുത്തുവയ്ക്കുന്നിടത്ത് കാലിരിക്കുന്നുണ്ടോ കൈപിടിച്ചെടുത്ത് കയ്യീന്ന് വിട്ടുപോവോ എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ മനസ്സിൽ വരാറുണ്ട് പക്ഷേ നമ്മളത് ചിന്തിക്കാന് പാടില്ല അങ്ങനെ നമ്മള് മുന്നോട്ട് പോവുക നമ്മളതിനെപ്പറ്റി നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡി ഫിറ്റാണെങ്കിൽ നമുക്കെല്ലാ കാര്യങ്ങളും ചെയ്യാന് പറ്റും